ഗ്രഹങ്ങള് മുതല് താരാപഥങ്ങള് വരെ അതിനപ്പുറം വ്യത്യസ്ത തലത്തിലുള്ള ആകാശ ഗോളങ്ങളുടെയും പ്രതിഭാസങ്ങളുടെ ഒക്കെ സ്വഭാവം എങ്ങനെ പഠിക്കാമെന്നു ചോദിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് എന്ത് ജിയോളജിയിലൂടെയാണു നമുക്കു പഠിക്കാൻ കഴിയുന്നത് ജിയോളജി എന്നു പറയുന്ന വിഷയം നമുക്കു ബഹിരാകാശത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ശാസ്ത്രജ്ഞമാര് നിർമ്മിച്ച പുസ്തകമാണ് അപ്പോള് അതിലൂടെയാണു നമുക്കു കൂടുതൽ വിവരങ്ങളെല്ലാം അറിയാൻ കഴിയുന്നത് അതിപ്പോള് ബഹിരാകാശത്തെപ്പറ്റിയാണെങ്കിലും താരാപഥങ്ങളെ പറ്റിയാണെങ്കിലും അതിനപ്പറം വരുന്ന വ്യത്യസ്ത തലത്തിലുള്ള ആകാശ ഗോളങ്ങളെ പറ്റിയാണെങ്കിലും പ്രതിഭാസങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് ഈയൊരു വിഷയത്തിലൂടെയാണ്